അഞ്ച് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് എട്ട് രണ്ടായിരത്തി മൂന്ന് പതിനഞ്ച് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഒൻപത് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി രണ്ട് എട്ട് പതിനഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച്